ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള സ്വകാര്യ ബാങ്കുകളെന്ന് പറഞ്ഞാൽ ചുങ്കപ്പാറ എന്ന സ്ഥലത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു റിമോട്ടായിട്ടുള്ളൊരു വില്ലേജാണ് അവിടെ സ്വകാര്യ ബാങ്കുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഫെഡറൽ ബാങ്കാണ് പിന്നെ കേരള ബാങ്ക് കേരള ബാങ്ക് സ്വകാര്യ ബാങ്ക് അല്ല സ്വകാര്യ ബാങ്കെന്നത് അതുണ്ട് പിന്നെ സർവീസ് കോർപ്രേറ്റീവ് ബാങ്കുകളുണ്ട് കുറച്ച് പിന്നെ പ്രൈവറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിട്യൂഷസ് ഉണ്ട് ഇവിടെ ഈ ചുങ്കപ്പാറയില് ആകെ ഉള്ളത് പിന്നെ ഫെഡറൽ ബാങ്കാണ് എന്നാൽ ചുറ്റുവട്ടത്ത് ഈ താലൂക്കിലേക്ക് പോകുമ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട് സി എസ് ബി ഉണ്ട് അങ്ങനെ പിന്നെ എച്ച് ഡി എഫ് സി ഉണ്ട് ഐ സി ഐ സി ഐ ഉണ്ട് ആ അങ്ങനെ കുറച്ചും കൂടെ ന്യൂ ജനറേഷൻസ് വരി ബാങ്കുകളും ഈ ഈ ഒരു പത്ത് കിലോമീറ്ററിനകത്ത് ഉള്ളതായിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എൻ്റെ അഭിപ്രായത്തിൽ ഫെഡറൽ ബാങ്ക് പിന്നെ നാഷണലൈസ്ഡ് ബാങ്കുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ പിന്നെ പ്രൈവറ്റ് ബാങ്കുകൾക്ക് അര ശതമാനം തൊട്ട് ഒന്ന് ഒന്നര ശതമാനം വരെ വായ്പ്പയ്ക്ക് പിന്നെ അഡിഷണലായിട്ടുള്ള ഇൻട്രസ്റ്റ് അധികം ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ബാങ്കാണ് പ്രൈവറ്റയ്സ്ഡായിട്ട് പ്രൈവറ്റ് ഷെഡ്യൂൾഡ് കൊമേർഷ്യൽ ബാങ്കുകള് നാഷണലൈസ്ഡ് ബാങ്കുകളെക്കാലും അങ്ങനെയാണത് ഫോളോ ചെയ്യുന്നത് ഡെപോസിറ്റിനും അത്പോലെ അത്യാവശ്യം നല്ല ഇൻട്രെസ്റ്റ് കൊടുക്കുന്ന ബാങ്കാണ് ഫെഡറൽ ബാങ്ക് അത് പിന്നെ ഞാന് സ്വകാര്യ ബാങ്കില് ഒര് ജീവനക്കാരി ആയി റിട്ടയറായത് കൊണ്ട് ഞങ്ങളുടെ ബാങ്കിലെ എല്ലാ കാര്യങ്ങളും വളരെ സ്വകാര്യവും അത്പോലെ തന്നെ വളരെ എളുപ്പമുള്ളതും കുറെ കൂടെ എന്താ പിന്നെ വർക്ക് ഓറിയെൻറ്റെഡ് ആയിട്ടുള്ളതും ആയത് കൊണ്ട് എനിക്ക് അതിനോടാണ് കൂടുതല് താല്പര്യമായിട്ട് വരുന്നത്

അതുപോലെ പിന്നെ വായ്പ്പയ്ക്കും വായ്പ്പകളും പല തരത്തിലുള്ള കാർഷിക വായ്പ്പകളെ പോലെ ഗവൺമെൻ്റ് സബ്സിഡൈസ് റൈറ്റുള്ള ബാങ്കുകളിലൊക്കെ വായ്പ്പയുടെ പലിശയൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും അതേസമയം എഡ്യൂക്കേഷണൽ ലോൺ പോലെ ഉള്ളതിനെ എപ്പഴും നാഷണലൈസ്ഡ് ബാങ്കുകളിലാണ് റേറ്റ് കുറവായിട്ട് കണ്ടിരിക്കുന്നത് അങ്ങനെ ഉള്ള വായ്പ്പകളിൽ നമ്മൾക്കറിയുന്ന വ്യക്തികളെ പിന്നെ ഞാന് എസ് ബി ഐ യിലേക്കൊക്കെ പറഞ്ഞ് വിടുമ്പളും പലരും ഇച്ചിരെ പലിശ അധികവായാലും വേണ്ടുകേല ഇവിടെയാണ് സംഗതി എളുപ്പം നടക്കുവല്ലോ വലിയ നൂലാമാലകളൊന്നുമില്ലല്ലോ മാനേജരിതെല്ലാം ചെയ്ത് തരുമല്ലോ എന്നും പറഞ്ഞ് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് അവിടെ പോകാതെ കൂടിയ റേറ്റിലാണെലും ഹൗസിങ്ങ് ലോണ് കാർ ലോണ് എഡ്യൂക്കേഷണൽ ലോണും അങ്ങനെ പല വായ്പ്പകൾക്കും ഫെഡറൽ ബാങ്കിനെ സമീപിക്കുന്നതായിട്ട് ഞങ്ങൾക്കറിയാം അതിൽനിന്നും മനസ്സിലാക്കാവുന്നത് നാഷണലൈസ്ഡ് ബാങ്കില് ഉള്ള സ്റ്റാഫിനെകായിലും ഉത്തരവാദിത്തത്തോടെ സിൻസിയറായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തികളാണ് പിന്നെ സ്വകാര്യ ഷെഡ്യൂൾഡ് കൊമേർഷ്യൽ ബാങ്കുകളിൽ ഉള്ളതെന്ന് അല്ലേ അതിന് അർത്ഥമായിട്ട് വരുന്നത് അതുകൊണ്ട് ഇവിടെ ഇവിടെ പല ബാങ്കുകളിൽ കയറി ഇറങ്ങുമ്പഴും ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്നത് പിന്നെ സ്വകാര്യ ബാങ്കുകളിൽ കിട്ടുന്ന ഒരു സമീപനമല്ല നാഷണലൈസ്ഡ് ബാങ്കുകളിൽ ചെന്ന് കഴിയുമ്പം സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് അത്കൊണ്ട് തന്നെ ഞാനെപ്പോഴും സ്വകാര്യ ബാങ്കുകളിലാണ് വായ്പ്പക്കും ഇൻഷുറൻസിനും മെച്ചപ്പെട്ടതും ഷെഡ്യൂൾഡ് മെച്ചപ്പെട്ടത് സുരക്ഷിതത്വം എന്ന് പറയുമ്പോൾ നാഷണലൈസ്ഡ് ബാങ്കില് ഫോർ എക്സാംപിള് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ ഉള്ള ഭാരതീയ സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇതിലുള്ള അല്ലാതെ പിന്നെ കേരള ഗ്രാമീൺ ബാങ്ക് അല്ലെങ്കിൽ കേരള ബാങ്ക് പോലെ സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ബാങ്കുകള് പിന്നെ നാഷണലൈസ്ഡ് ബാങ്കുകള് അവിടെ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനത്തിനൊര് ധാരണ ഉണ്ട് അങ്ങനെ ഉള്ള ബാങ്കുകളിൽ കൂടുതല് സുരക്ഷിതമായിരിക്കുമെന്ന് പക്ഷെ ഫെഡറൽ ബാങ്ക് പോലെ ഉള്ള ബാങ്കുകള് എത്രയോ വർഷം മുന്നേ യാതോരു കുഴപ്പവും കൂടാതെ എല്ലാ അർത്ഥത്തിലും മുന്നിൽ നിൽക്കുന്ന ആയത് കൊണ്ട് എൻ്റെ അഭിപ്രായത്തില് സ്വകാര്യ ബാങ്കിലെ സർവീസുകളാണ് വായ്പ്പക്കും ഇൻഷുറൻസിനും ഏറ്റവും മെച്ചപ്പെട്ടതും സുരക്ഷിതവും ആയിട്ട് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാന് സ്വകാര്യ ബാങ്കിൽ നിന്ന് ആണ് ഞാൻ സ്വകാര്യ ബാങ്ക് ഇൻ ദെ സെൻസ് ഷെഡ്യൂൾഡ് കൊമേർഷ്യൽ ബാങ്കല്ല അത് മുത്തൂറ്റ് പോലെ ഉള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിട്യൂഷനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഉള്ള ബാങ്കിനാണ് ഞാൻ മുൻഗണന നൽകുന്നത്